ഞാൻ ഇതുവരെ ആയിട്ടും ഒരു നീന്തൽ മത്സരങ്ങളിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല എന്റെ വീട്ടിൽ ഒരു ചെറിയ കുളമുണ്ട് ഞാൻ എന്റെ കസിൻസ് എന്റെ സിസ്റ്റേഴ്സ് എന്റെ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ടൈം ക നീന്തിയും കളിച്ചും പാട്ട് പാടുകയും അങ്ങനെ ഒരുപാട് ടൈം ഞങ്ങൾ ആ കുളത്തിൽ ചിലവഴിക്കാറുണ്ട് നല്ല എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ അത്ര വലിയ കുളമൊന്നും അല്ലെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാ കുട്ടികളും അവിടെ വന്നാണ് നീന്തൽ പഠിച്ചിരുന്നത് ഞങ്ങളും ഒരുപാട് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുകയും അവരുടെ കൂടെ ഒരുപാട് ടൈം നീന്തുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ വിനോദത്തിനായിട്ട് ഞാൻ പുറത്തൊന്നും പോകാറില്ല എന്റെ ഒരു ആന്റിയുടെ വീടുണ്ട് ആ വീട്ടിൽ പോയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ പോകാറുള്ളതിനു കാരണം ഞങ്ങളുടെ അവിടൊരു പുഴ ഉണ്ടായിരുന്നു വീടിനൻ്റെ അടുത്ത് അവിടെ പുഴയിൽ നീന്തറുണ്ടായിരുന്നു അവിടെ കസിൻന്റെയും സിസ്റ്റേഴ്സ്സിന്റെയും ഒക്കെ കൂടെ പോ അവിടെ ഒരുപാട് ടൈമെടുത്തു ഞങ്ങൾ ആ പുഴയിലൊക്കെ നീന്തി കുളിച്ച് അവിടെ നല്ല നല്ല രസമുള്ള പാറകളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിട്ടും നീന്തി അങ്ങനെ ഒരുപാട് ടൈമെടുത്തു ഞങ്ങൾ അവിടെ കളിച്ചിട്ടുണ്ട് നീന്താറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെയൊരു ആൻറ്റിയുടെ വീട്ടിൽ അവിടെ വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ തന്നെ ഞങ്ങൾ പോയി എപ്പോഴും നീന്തറുണ്ടായിരുന്നു ചെറുതായിരുന്ന സമയത്ത് ഇടക്ക് ഇടക്ക് കുളത്തിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നു അന്ന് സിസ്റ്റർ ഉണ്ടായിരുന്നു കൂടെ സിസ്റ്ററും ഞാനും ആണ് അവിടെ പോകലും അവിടെ കസിനും കസിൻസൊക്കെ ഉണ്ടായിരുന്നു ആൻറ്റിയുടെ വീട്ടിൽ അപ്പോൾ അവരൊക്കെ എല്ലാവരും പാടെ വന്ന് ഞങ്ങൾ ആ കുളത്തിലൊക്കെ ഒരുപാട് അത് ഞങ്ങളുടെ വീട്ടിലെ കുളത്തിനേക്കാളും വലിയ കുളമായിരുന്നു അപ്പോൾ കാണുമ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇറങ്ങി നീന്താൻ തുടങ്ങിയാൽ നമുക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് ആയിരുന്നു അതിനു വേണ്ടി ഞങ്ങൾ ഇടക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് ഇന്നും നല്ല ഇഷ്ടമുള്ള ഒരു ആഗ്രഹമുള്ളവർ നീന്തൽ എന്നു പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്